ചിത്രരചന ഒരു ജോലിയാക്കി ഏറ്റെടുക്കാൻ കഴിയുമോന്ന് ചോദിച്ചാല് കഴിയും കാരണം നല്ലൊരു നല്ലൊരു പാഷനുള്ളവർക്ക് എന്തുകൊണ്ടും ചിത്രരചനയുമായി മുന്നോട്ട് പോകാം അതുപോലെ തന്നെ ഒരിക്കലും ഈ ചിത്ര രചന അല്ലെങ്കില് ഈ ചിത്രങ്ങൾ നിന്ന് പോകുന്നില്ല കലാകൻ കലാകാരന്മാർക്ക് ഇന്ന് അംഗീകാരം നല്കും അത് എവിടെ ആയാലും ഏത് രാജ്യത്തിൻ്റെ ഏത് കോണിലായാലും ചിത്രരചന അതായതൊരു നല്ലൊരു പടം വരയ്ക്കാൻ അറിയുന്ന ഒരു വ്യക്തിക്ക് അതായത് ഒരു പടത്തിന് പത്ത് ലക്ഷം രൂപ വേണമെങ്കിലും കിട്ടുന്ന ഒരുതാണ് കാരണം അദ്ദേഹത്തിന് വേറെ കഷ്ടപ്പെടാനോ ഒന്നും തന്നെ ഇല്ല ഒരു പേന അല്ലെങ്കിൽ ഒരു പെൻസിലില് ഒരു ഒരു ലൈനിൽ ഒരു ലൈൻ വരച്ചാൽ തന്നെ ഒരു പടമായി

പൈസ എന്തുകൊണ്ടും ഞാനിതൊരു തൊഴിലാക്കി എടുക്കും കാരണം ചിത്രരന നല്ലൊരു തൊഴിലാണ് തൊഴിലാകുന്നു അതുപോലെ തന്നെ എല്ലാവർക്കും ഇതൊരു കൗതുകമായ ഓരോരോ ചിത്രരചന ഭാവനകളും അതിനുപരി നല്ല നല്ല സന്ദേശങ്ങളും കാണിക്കുന്നു